എനിക്ക് എഴുതാൻ ആഗ്രഹമുള്ള കാര്യങ്ങളുണ്ട് പറയുന്നത് കൊണ്ട് എത്രത്തോളം അവിൾ ആളുകളിൽ എത്തും എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ എനിക്ക് എഴുതണമെന്ന് തോന്നിയ ഒരു കാര്യങ്ങളുണ്ട് മനുഷ്യന് ലോകത്ത് എല്ലാവർക്കും തുല്യ അവകാശമുള്ള ആൾക്കാരാണ് മൃഗമായിക്കോട്ടെ മനുഷ്യനായിക്കോട്ടെ ചെറിയ ഉറുമ്പ് ആയിക്കോട്ടെ എല്ലാവർക്കും ഈ ലോകത്ത് ഈ ഭൂമിയിൽ തുല്യ അവകാശമെന്നുള്ളതുണ്ട് അവർക്ക് ജീവിക്കാനും മരിക്കാനും മരണം വരെ അവർക്ക് ഈ ഭൂമിയിൽ കഴിയാൻ ദൈവം എല്ലാവർക്കും അവകാശം നൽകിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ നമ്മള് ഈ എന്താ പറയുക ലെസ്ബിയൻ അതേപോലെ തന്നെ ബി എൽ അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മളെന്തു പറയും മാറ്റി നിർത്തും കാരണം അവരെന്തോ അപരാധം ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും ഞാനൊരു സാധാരണ ഹ്യൂമൻ ബീയിംഗ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കില് അവർക്കും അവര് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ചിന്താഗതി വ്യത്യാസമാണല്ലോ എനിക്ക് എൻ്റെ ചേട്ടായിനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് അതേപോലെത്തന്നെ അവർക്ക് അവരുടെ ഹസ്ബൻഡിനെ സ്നേഹിക്കാൻ പറ്റണമെന്ന് എന്തെങ്കിലും ഒരിതുണ്ടോ അവര് അവരുടെ പങ്കാളിയെ അവര് പങ്കാളിയെ ചൂസ് ചെയ്യുന്നതവരാണ് അപ്പോൾ അവർക്ക് ഒരാണിനോട് സ്നേഹം തോന്നില്ല ചിലപ്പോൾ ആണുങ്ങക്ക് പെണ്ണിനോട് സ്നേഹം തോന്നില്ല അവർക്ക് അവരുടെ ജെന്ററിനോട് ഉള്ളവരോടാണ് സ്നേഹം തോന്നുന്നത് അതവരുടെ തെറ്റല്ല അതേപോലെത്തന്നെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാര് അവരെ നമ്മള് എന്തോ ഒൻപത് അങ്ങനെയൊക്കെ വിളിക്കുന്നു അവരുടെ അവരങ്ങനെ ആവുന്നില്ല ദൈവം ഓരോരുത്തരെ ജനിപ്പിക്കുമ്പോൾ അവരുടെ അവരെ അങ്ങനെ ആക്കുന്നതാണ് അവര് സ്വയം അവര് അങ്ങനെ ആവണം എന്ന് വെച്ച് ആവുന്നവരല്ല അപ്പോൾ നമ്മള് എന്താ ചെയ്യുക അതൊക്കെ ഒരു സമകാലിക വിഷയമായിട്ടെടുത്ത് അതിനെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് എഴുതണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഏഹ് അത് ആ ഒരു അതിനെക്കുറിച്ചുള്ള ഇത് എല്ലാവരിലുമെത്തിക്കാൻ അതൊരു തെറ്റല്ല അത് അത് അങ്ങനെയാണ് എന്നുള്ളതിൽ എത്തിക്കാൻ എനിക്ക് കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം എല്ലാവരും മനുഷ്യരായിട്ട് നമ്മള് കാണണം മൃഗങ്ങളെപ്പോലെ അവരെ ഇതാക്കരുത് ട്രീറ്റ് ചെയ്യരുത് അവരവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു അത് കണ്ടിട്ട് നമ്മള് കണ്ണിൽ കടി ഉണ്ടായിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ പുരോഗമന ചിന്താഗതി വരണം നമുക്ക് ഇവിടെ നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് സർവ്വസാധാരണമാണ് പിന്നെ നമുക്കെന്തുകൊണ്ട് നമ്മളങ്ങനെ മാറ്റി നിർത്തുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല